നമ്മളുടെ സ സമൂഹത്തിൽ കുറേയേറെ വിലക്കുകളും അന്ധവിശ്വാസങ്ങളും തെറ്റായ ധാരണകളും ഉള്ളൊരു സംഭവമാണ് സ്ത്രീകളിലെ ആര്ത്തവം അതിന് ഇപ്പോൾ പണ്ടുകാലം മുതലെ വളരെ മോശവായിട്ടുള്ള രീതിയിലാണ് ആര്ത്തവ സമയത്ത് സ്ത്രീകളെ കൈകാര്യം ചെയ്ത് പോരുന്നിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലുമൊരു ഇരുട്ടുമുറിയിലടയ്ക്കുക മൂന്നുദിവസം പോ വേറാരെയും സ്പര്ശിക്കാതിരിയ്ക്കുക വെറും തറയിൽ കിടക്കുക അങ്ങനത്തെയൊക്കെയൊരു സാഹചര്യങ്ങളിലായിരുന്നു പണ്ടു കാലങ്ങളിൽ സ്ത്രീകൾ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ആര്ത്തവ സമയങ്ങളിൽ യൂസ് ചെയ്യാനൊരു പാഡ് പോലും ഇല്ലാതെ മണ്ണു കൊണ്ടും മണലു കൊണ്ടുവരെ ആര്ത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഒരിതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓരോ ലേഖനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് ചട്ടങ്ങളൊന്നും ശാസ്ത്രീയമായിട്ടില്ല ഇപ്പം ആ സമയത്ത് വയറുവേദനയൊക്കെയുള്ള ആളുകള്ക്ക് വിശ്രമിക്കാം അതിനുള്ള മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ളത് വളരെ മോശപ്പെട്ട കുറേ ചട്ടങ്ങളുണ്ട് ഇപ്പുദാഹരണത്തിന് പറയുക എന്നുണ്ടെങ്കിൽ തുളസി തൊടരുത് ചെടി തൊടരുത് കിണ്ടിയെ തൊടരുത് ഒരു പുരുഷന്മാരെ സ്പര്ശിക്കരുത് കിടക്കയിലിരിക്കരിത് കിടക്ക തൊടരുത് അലമാര തൊടരുത് അങ്ങനെ കുറേ വിലക്കുകളുടെ വിലക്കുകളുടെയൊരു കൂമ്പാരമാണ് ആര്ത്തവ സമയത്ത് സ്ത്രീകൾ നേരിടേണ്ടിവരുന്നത് ഇങ്ങനെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വെച്ച് നീട്ടി കൊടുക്കുന്ന രീതിക്കും അതല്ല ഇനിയീ തുണി ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിച്ച തുണി കഴുകി ആരും കാണുന്ന സ്ഥലത്തിടാന് പാടില്ല ഏതെങ്കിലും ഇറയത്തോ തണലിലോ ആരും കാണാത്ത ഭാഗത്തു വെച്ചിട്ടാണ് ഉണക്കിയെടുക്കാറ് പക്ഷെയേറ്റവും ശുചിത്വം വേണ്ടൊരു സംഭവമാണത് വെയിൽ കൊള്ളിച്ച് നന്നായി വൃത്തിയോടെ ഉണക്കിയെടുക്കുകയൊക്കെ വേണ്ടതാണ് അതുമല്ല ഒരു തുണി മൂന്നുമാസമൊക്കെ ഉപയോഗിക്കാന് പാടുള്ളൂ പക്ഷെ നമ്മളെ സമൂഹത്തിൽ എന്താവെച്ചാൽ അതിനാരും പരിഗണന കൊടുക്കുന്നില്ല ഇപ്പോൾ പാഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് എണ്ണത്തിലുള്ള പാഡ് വാങ്ങി കൊടുക്കേ അത് അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള മാര്ഗ്ഗങ്ങൾ ഒന്നുമില്ല പിന്നെ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്നു പറയുകയാണെങ്കിൽ മെന്സ്ട്രല് കപ്പുകളുടെ വരവോടു കൂടിയൊക്കെയാണ് കുറേ മാറ്റം അപ്പം നമുക്ക് കുറേ ഹൈജീനായിട്ടിരിക്കാൻ ഭയങ്കര ഉപകാരപ്പെടുന്നതാണ് മെന്സ്ട്രല് കപ്പുകൾ തുണിയൊക്കെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഇടക്കിടക്കെന്നു പറഞ്ഞാൽ മാറ്റേണ്ടി വരും അതുണക്കിയെടുക്കുമ്പോൾ വെയിൽ കൊള്ളിച്ചുണക്കാത്തത് കൊണ്ടുതന്നെ അതിൽ പല ഇന്ഫെക്ഷനുകളുമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പാഡുകളുപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല പല സ്ത്രീകള്ക്കും ഈ ഗര്ഭപാത്രത്തിൽ പല പ്രശ്നങ്ങളുമായിട്ട് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണേ നന്നായിട്ട് വൃത്തിയായിട്ട് ഭക്ഷ് ഭക്ഷണം കഴിക്കുക കുളിക്കുക പിന്നെ ഇത് പാഡിന്റവിടെയൊക്കെ ക്ലീന് ചെയ്യുക വേറെന്താ ചെയ്യുക ദാരിദ്ര്യം കൊണ്ടും പല സാഹചര്യങ്ങള് കൊണ്ടും വിദ്യര്ത്ഥികള്ക്കാണെങ്കിൽ പാഡ് ഉപയോഗിക്കുന്നവർ രാവിലെ വെച്ച പാഡു തന്നെ കൊണ്ട് വീട്ടിലേക്ക് വരാ ചെയ്യാറ് അപ്പോൾ ശരിക്കും പാഡൊന്നും അത്ര സമയൊന്നും ഉപയോഗിക്കാന് പോലും പാടില്ല പക്ഷെ സാഹചര്യങ്ങൾ അത്രയും സമ്മര്ദ്ദമാക്കുകയാണ് അവരെയങ്ങനെ ചെയ്യാൻ പിന്നെ ഇപ്പം ഈ സമയത്ത് പാലിക്കേണ്ട ചട്ടങ്ങളെന്നു പറഞ്ഞ് ഈ മരണ സമയങ്ങളിലൊന്നും ഈയൊരു സമയങ്ങളിൽ അപ്പം ആര്ത്തവസമയങ്ങളിൽ പ്രവേശിപ്പിക്കുന്നുമില്ലവരെ കാണാനോ ആ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അതിപ്പോൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും സ്ത്രീകളാവൊരു സമയത്ത് ഇത്തരം സം അവസരങ്ങളില് നിന്നൊക്കെ നമ്മളെ വിലക്കേര്പ്പെടുത്തുക അവർ കാണാന് പാടില്ലാ എന്നൊക്കെ അതവരിലുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വളരേയേറെയാണ് പ്രത്യേകിച്ചാ ആര്ത്തവ സമയത്ത് ആള്റെഡി ഓരോ ഹോര്മോണ് ചേയ്ഞ്ചിന്റെയൊക്കെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളായിരിക്കും അതിൻ്റിടയിലിത്രയും കൂടി പീഡനങ്ങളും വളരെ മോശമാണ്